ഞങ്ങളുടെ പ്രദേശത്തെ ചികിത്സാ നടപടികൾക്ക് വേണ്ടി ഉള്ള മെഡിക്കൽ ടീം

നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലെ ഉള്ള കായിക മത്സരങ്ങളിൽ മെഡിക്കൽ ടീം ഉണ്ടാകുന്നത് വളരെയധികം കുറവാണ് അത് എന്തുകൊണ്ടും അത്ര നല്ല കാര്യമല്ല കാരണം ഒരു മത്സരമാകുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാനും നമ്മടെ ശരീരം മുറിവേൽക്കുവാനും ചതവും ഓടിവുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഫുട് ബോൾ കബഡി അങ്ങനെ ശാരീരികമായി വരുന്ന കളികളില് നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ വളരെ ചാൻസുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ടീം ഉണ്ടാകുക എന്നതു വളരെയധികം ആവശ്യമുള്ള കാര്യമാണ് എന്തായാലും ഒരപകടം സംഭവിക്കുമ്പോൾ മെഡിക്കൽ ടീം അവിടെ ഉണ്ടെങ്കിൽ അവർ അതു നോക്കി നടത്തും അതും അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള നാട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് ആ സ്ഥിരം അതേ പറ്റുന്നുള്ളൂ ആശുപത്രിയില് കൊണ്ടുപോയി ചികിത്സിക്കുക പൊട്ടലും ചതവാക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ചികിത്സ ഹോസ്പിറ്റലില് അവർ ചെയ്തു തരുന്നതാണ് പിന്നീടു വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുവച്ചാൽ ഇവിടെ മത്സരം നടക്കുന്ന സ്ഥലവും ഈ പറയുന്ന ആശുപത്രികളുടെയും ദൂരം ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇടുക്കി ഈ ഭാഗമൊക്കെ മലയോര പ്രദേശങ്ങളാണ് ഇവിടുന്ന് പെട്ടെന്ന് അത്യാവശ്യമായി നമുക്ക് പെട്ടെന്നു പോവാൻ അത്ര ഒരു പരിധിയുണ്ട് കാരണം വളവും കുന്നും ബ്ലോക്കും അങ്ങനെ അമിതമായ വാഹനങ്ങളുടെ ബുദ്ധിമുട്ടും അതൊക്കെ കാരണം ആശുപത്രിയിൽ എത്തുവാൻ കുറച്ചു താമസം എടുക്കേണ്ടത് അതിനാൽ തന്നെ അതൊക്കെ തന്നെയാണ് ഒരു മത്സരത്തിൽ മെഡിക്കൽ ടീമുണ്ടെങ്കിൽ അതു വളരെയൊരു ഉപയോഗമായിരിക്കും പിന്നീട് പറയാനുള്ളത് നമ്മളൊരു മത്സരം തുടങ്ങുന്നതിനു മുമ്പ് വേണ്ടിയ വാം അപ്പ് സെഷൻ അതായത് നമ്മൾ ശരീരമൊന്ന് അനക്കി ഒന്ന് ചൂട് ചൂടു പിടിപ്പിച്ചിട്ടു വേണം നമ്മള് ഒരു മത്സരത്തിനു പോവാൻ നേരെ ഉറക്കത്തില്നിന്നു രാവിലെ കാപ്പിയും കുടിച്ചു നേരേ മത്സരത്തിനു പോവുകയാണെങ്കിൽ അതു നമുക്ക് അപകടം വരുത്തുവാൻ വളരെ സാധ്യതുണ്ട് പിന്നെ പിന്നീടത് കൃത്യമായ കൃത്യമായ അറിവും മത്സരത്തെക്കുറിച്ചുള്ള ധാരണയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്മാതിരി ആക്സിഡൻ്റ് വരാന് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ ഉള്ള സാധ്യത കുറയുന്നതാണ് അപ്പോൾ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്ന താരങ്ങൾക്കു പരിക്കേൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അപകടം സംഭവിക്കുകയാണെങ്കിൽ അവർക്കുള്ള ചികിത്സാനടപടിയെന്നത് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് ആശൂപത്രിയിൽ കൊണ്ടുപോവുക ചികിത്സിക്കുക വീട്ടുകാരെ വിളിക്കുക വീട്ടുകാരെ അറിയിക്കുക അതൊക്കെയാണു നമ്മുടെ കർത്തവ്യങ്ങൾ